പാട്ട് പാട്ട് കേൾക്കാനെന്ന് പറഞ്ഞാൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഈ ട്രാവൽ ചെയ്യണ സമയത്ത് അതുപോലെ രാത്രി ഇപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കുന്ന സമയത്തൊക്കെ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലാത്തപ്പോഴും പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് വെറൈറ്റി അത് ഓരോ എൻ്റെ ഓരോ സമയത്തു ഞാൻ ഓരോ മൂഡായിരിക്കും അപ്പോൾ ആ സമയത്തു അതിന് അനുസരിച്ചുള്ള ചില സമയത്തു നല്ല മെലഡി പാട്ടുകൾ കേൾക്കും ചില സമയത്ത് നല്ല സ്പീഡ് ആയിട്ടുള്ള ഫാസ്റ്റ് സോങ്സ് കേൾക്കും പിന്നെ മണിച്ചേട്ടൻ്റെ നാടൻ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണിച്ചേട്ടൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ അതായത് മണിച്ചേട്ടൻ്റെ പാട്ട് കേട്ടാൽ സൂപ്പറായിട്ട് അതാർക്കും

മണിച്ചേട്ടൻ്റെ നാടൻ പാട്ട് കേൾക്കാത്ത ആൾക്കാർ ഇപ്പോൾ കുറവായിരിക്കും ആൾ മരിച്ചാലും ആളുടെ പാട്ടുകൾ എന്നും ജീവിക്കുമെന്ന് ഈ പറഞ്ഞപോലെ ആളുടേത് അത്രയും ആ പാട്ടിനെയൊക്കെ ഒരു എന്താണ് പറയുക അത്രയും മനോഹരമായിട്ടാണ് മൂപ്പര് പാടിയത് അതുപോല ആ ഒരു ഈണം കാര്യങ്ങളൊക്കെ അത് ഭയങ്കര എന്താണ് എനിക്ക് മൂപ്പരുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ രാത്രി ഇപ്പോൾ ഒരു ഉറക്കം വന്നില്ലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ മെലഡി സോങ്സോക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് അത് ഉറക്കം വരും പിന്നെ ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്തു ട്രാവലിംഗിനൊക്കെ പറ്റിയ പാട്ടുകളൊക്കെ കുറേ പാട്ടുകൾ ഇപ്പോൾ നമ്മുടെ സിനിമ രംഗത്ത് അല്ലെങ്കിൽ എന്താണ് പറയുക സിനിമ വെബ് സീരീസും കാര്യങ്ങളും അങ്ങനത്തെ വന്നതുകൊണ്ട് അധികം ആൾക്കാരും ഇപ്പോൾ അങ്ങനെ പോകുന്നു പക്ഷേ പാട്ട് കേൾക്കാൻ പണ്ടുള്ള ആൾക്കാർ ഈ റേഡിയോയിലൊക്കെ പാട്ട് കേൾക്കുന്ന കാണാം ഇപ്പോഴും റേഡിയോയിൽ ഇഷ്ടംപോലെ പാട്ടുകൾ ഇപ്പോൾ നമ്മുടെ എന്താണ് പറയുക എഫ് എമ്മുകളിൽ എപ്പോഴും പാട്ടുകളും കാര്യങ്ങളുമൊക്കെ വരും അപ്പോൾ ആ സമയത്തൊക്കെ പാട്ട് കേൾക്കാൻ അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണെന്ന് പറയുമ്പോൾ നമുക്ക് എഫ് എമ്മൊക്കെ വച്ചു കഴിഞ്ഞാൽ ഏതു സമയത്തും പാട്ടുകൾ കേൾക്കാനും അതിനെക്കുറിച്ച് ആ ഒരു എന്താണ് പറയുക നമ്മുടെ ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ സ്ട്രസ്സും കാര്യങ്ങളുമൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കമ്മിയാവും അതിന് നമ്മൾ കുറച്ചു നേരം പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു റിലീഫും കാര്യങ്ങളുമൊക്കെ കിട്ടും